ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഫോട്ടോ എടുക്കാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു ആദ്യം ഞാൻ ചെറിയ ഫോണിലായിരുന്നു എടുത്തോണ്ടിരുന്നേ പിന്നെ ടച്ച് ഫോണായി പിന്നെ പിന്നെ ഞാൻ പഠിച്ചു ഫോട്ടോഗ്രാഫിക്കു പഠിക്കാൻ പോയി പിന്നെ ഞാൻ മയില് കാക്ക എന്നൊക്കെപറഞ്ഞു ഫോട്ടോ എടുക്കുമായിരുന്നു അതുകഴിഞ്ഞു ഇൻ്ററസ്റ്റ് ഉണ്ട് എന്നുപറഞ്ഞു ഇതാക്കിയപ്പോ വീട്ടുകാരെന്നെ ഒരു എട്ടിലോ ഒൻപതിലൊക്കെ എത്തിയപ്പോ എനിക്കൊരു ക്യാമറയും വാങ്ങിത്തന്നു പഠിക്കാൻ വിട്ടു അങ്ങനെ അത് പഠിച്ച് എല്ലാമായി ഇപ്പോൾ എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട് നല്ലതായിട്ടു ഞാൻ ഇപ്പോൾ കൊണ്ടുനടക്കുന്നുണ്ട് സ്റ്റുഡിയോ ഇപ്പോൾ ഒരെണ്ണം കൂടി പുതിയതിണ്ട് പുതിയത് ഒരെണ്ണം കൂടെ തുടങ്ങുന്നിണ്ട് സ്റ്റുഡിയോ എനിക്ക് ഫോട്ടോഗ്രാഫിക്സിൽ ആണു എടുക്കേകെ കൂടുതല് എനിക്ക് വല്ലാണ്ട് ഇൻ്ററസ്റ്റ് വരുന്നത് ഫോട്ടോസ് എടുക്കുന്നതിലാണ് അതുപോലെത്തന്നെ എനിക്ക് ഇപ്പോൾ ഞാൻ കൂടുതലും ഇപ്പോൾ കല്യാണവർക്കൊക്കെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് കൂടുതലും എനിക്കിപ്പോൾ ഫോട്ടോസിനോട് വല്ലാത്ത താല്പര്യം ചെറുപ്പം മുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസിലേക്ക് മാറി എനിക്കിപ്പോൾ ഒരു തൊഴിലായി സ്വന്തം തൊഴിലായിട്ട് എനിക്ക് വേറെ ആരോടും അപേക്ഷിക്കാണ്ട് ജീവിക്കാൻ പറ്റി